എനിക്ക് ഏറ്റവും ഇഷ്ടം രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രകൃതിഭംഗികൾ ഒന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് കലാകാരൻമാർ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളിലൂടെ മാത്രമാണ് പല ചിത്രങ്ങളും നമ്മളെ പലതും പഠിപ്പിക്കും ചില ചിത്രങ്ങൾ നമുക്ക് പല ഓർമകളും തരും ഓർമ്മകൾ ചില ഓർമ്മകൾ നിറഞ്ഞതാണ് ചില ചിത്രങ്ങൾ അവ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം നൽകാറുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞുനിൽക്കുന്ന ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ആൾക്കാരുടെ ചിത്രശാലകൾ സന്ദർശിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ചിത്രശാലകൾ സന്ദർശിക്കുകയും അവയെക്കുറിച്ച് പഠിക്കുകയും അവയെ തൊട്ടറിയുകയും ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമുള്ളകാര്യമാണെനിക്ക് കൂടാതെ നല്ല ചിത്രങ്ങളെ ഏറ്റവും നന്നായി വരച്ച ആൾക്കാരെ മനസ്സിലാക്കി അവരുടെ ചിത്രങ്ങൾ നോക്കികണ്ട് പഠിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്